നാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എട്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പത്ത് മുപ്പത്തൊന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തിഎൺപത്തഞ്ച് അഞ്ച് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ്